ഇന്നത്തെ ആൾക്കാർക്ക് അധ്വാനിക്കാൻ താൽപ്പര്യമില്ല അപ്പം എല്ലാം കാശു കൊടുത്ത് മേടിച്ച് ചില ജീവിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ യുവാക്കളുടേയും പ്രത്യേകിച്ച് യുവതികളുടേയും മറ്റെല്ലാ പൊതുവെ എല്ലാവരുടേയും താൽപ്പര്യം ജോലി ചെയ്യുക കൃഷി ചെയ്യുക അല്ലെങ്കിൽ പശുവിനെ വളർത്തുക അങ്ങനെയുള്ള അടിസ്ഥാനമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ ആർക്കും താൽപ്പര്യമില്ല പാൽ വില കൊടുത്ത് മേടിക്കുന്നു പച്ചക്കറി വില കൊടുത്ത് മേടിക്കുന്നു മുട്ട വില കൊടുത്ത് മേടിക്കുന്നു അങ്ങനെ എല്ലാം അപ്പം എളുപ്പം നോക്കുന്നു അധ്വാനിക്കാനുള്ള മടി ഇങ്ങനെയുള്ളത് കൊണ്ട് നമ്മൾ ഒത്തിരി ഇത് കൂട്ട് എന്നാ മലിനമായ അതായത് വിഷാംശം ഉള്ള വസ്തുക്കൾ പാലും മുട്ടയും എല്ലാം അമിതമായ നാച്ചുറൽ അല്ലാത്തത് നമ്മൾ കഴിക്കേണ്ടി വരികയാണ് അത് നമ്മളെ രോഗികളാക്കുന്നു നമ്മുടെ പൈസ ആവശ്യമില്ലാതെ പോകുന്നു നമ്മൾ അധ്വാനിക്കാതെ ഉള്ള രോഗങ്ങളും നമ്മൾ മറ്റ് വിഷാംശം കലർന്ന ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുള്ള രോഗങ്ങളും എല്ലാം നമ്മൾക്ക് അതൊരു വലിയ അവസ്ഥേയിലോട്ടാണ് നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് നമ്മൾ എല്ലാവരും ഒരു ചെറുപ്പ കാലത്തിൽ തന്നെ രോഗത്തിന് അടിമകളായി പോകുകയാണ് അത് വേറെ ഒരു സംസ്കാരത്തിനും കൂടെ ഇടയാക്കുകയാണ് ആഗോള മരുന്ന് കമ്പനിക്കാർക്ക് അതൊരു ലാഭകരമായ പ്രവർത്തിയായിട്ട് നമ്മൾ അവർക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മളെ തന്നെ ഇതൊക്കെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ അധ്വാനിക്കാതിരിക്കുന്നതും മനുഷ്യരും മണ്ണിലോട്ട് ഇറങ്ങുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പം ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഈ കൃഷിയും കൃഷി രീതികളും കൃഷി ഉൽപ്പന്നങ്ങളെ പറ്റി അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെ പറ്റിയോ ഒന്നും ഒരു അറിവുമില്ല പശൂവിനേയും കാളയേയും പോത്തിനേയും പോലും തിരിച്ചറിയാൻ മേലാത്ത സാഹചര്യമാണ് ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി പറഞ്ഞായിരുന്നു എന്താണ് അതും കറക്റ്റ് ആണ് ഇന്നത്തെ പിള്ളേരോട് പശു എന്താണ് പോത്ത് എന്താണ് കാള എന്താണ് ആടിൻ്റെ അങ്ങനെയുള്ളതൊന്നും അവർക്ക് അറിയത്തില്ല അതിനെ കൊണ്ടുള്ള ഉപകാരം എന്താണെന്നറിയത്തില്ല ഒരു കൃഷി ചെയ്താൽ എന്ത് ഗുണം എന്താണ് എന്നറിയത്തില്ല അപ്പം മണ്ണിൽ നിന്ന് അങ്ങനെ ഒന്നും മണ്ണുമായിട്ട് സംസ്കാരം ഒരു സംവാദം നടക്കുന്നില്ല മണ്ണുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നില്ല അപ്പം അത് മണ്ണിൽ നിന്ന് അകലുകയാണ് മണ്ണ് അഴുക്ക് അഴുക്ക് പറ്റുന്ന ഒരു ഒരു വൃത്തികെട്ട എന്തോ പരിപാടി പോലെയാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കും കുട്ടികൾ കുട്ടികൾക്കും പ്രത്യേകിച്ച് കുട്ടികളെ മാതാപിതാക്കൾ തന്നെ ആണ് ചെളിയിൽ ഇറങ്ങാതെയും ഒക്കെ സംരക്ഷിച്ചു കൊണ്ട് പോകുന്നത് അവരുടെ ഭാഷയെ സംരക്ഷിക്കുന്നു പക്ഷേ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ത് നമ്മുടെ വീടുകളെല്ലാം ടൈൽ ഇട്ട് മണ്ണുമായിട്ട് ഒരു കണക്ഷനില്ലാതെ നമ്മൾ മണ്ണിൽ നിന്നും ഒരുപാട് നമുക്ക് എനർജി കിട്ടാനുണ്ട് അതൊന്നും ഇന്നുള്ള്വർക്ക് അറിയത്തില്ല മണ്ണിനകത്ത് എല്ലാ മിനറൽസും ഉണ്ട് ആ മിനറൽസ് നമ്മുടെ ശരീരത്തുവായിട്ട് ടച്ച് ചെയ്യുമ്പം നമ്മൾക്ക് ഒരുപാട് ബിപിക്കും അങ്ങനെയുള്ള മറ്റ് അസുഖങ്ങൾക്കും ഒക്കെ ഒത്തിരി നമ്മൾ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കാല് പണ്ട് പണ്ട് ചെരുപ്പ് ഇടാതെ നടന്നിരുന്ന കാലത്തൊക്കെ ആൾക്കാർക്ക് അധികം രോഗങ്ങൾ ഇല്ലായിരുന്നു അതൊക്കെ ഒരു ഫാക്റ്റ് ആണ് പക്ഷേ അതൊന്നും ഇപ്പം ഇപ്പം ഉള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അത് മനസ്സിലാക്കുന്നില്ല അതിൻ്റെ ഗുണവശങ്ങളെല്ലാം അറിയുന്നില്ല ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം കാലം മാറി പോയി നമ്മുടെ പഴഞ്ചൻ ചിന്താഗതിയാണെന്നേ ഇപ്പോൾ ഉള്ളവർ പറയുകയുള്ളു അതിനെ പറ്റി ഇപ്പം കൂടുതൽ സംസാരിച്ചിട്ട് പോലും കാര്യമില്ലാത്ത ഒരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്